നമുക്കിപ്പോൾ അടുത്താർക്കെങ്കിലും പാമ്പുകടി ഏറ്റിട്ടുണ്ടെങ്കിൽ ഏത് പാമ്പാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് പാമ്പാണോ കടിച്ചതെന്ന് നോക്കണം വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക പിന്നെ കാല് നന്നായി കാലിലാണ് ഇപ്പോൾ കടി ഏൽക്കുന്നെങ്കിൽ നന്നായി വലിഞ്ഞു കെട്ടാൻ നോക്കുക അപ്പം ബ്ലഡ്ഡ് കടിച്ച വിഷം നമ്മുടെ മേത്തോട്ട് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിഞ്ഞു കെട്ടുന്നത് എന്നിട്ട് വേഗം നമ്മൾ അടുത്തുള്ള ഗവൺമെൻറ്റ് ആശുപത്രിയിൽ പോയിട്ട് അവിടെ നിന്ന് അതിനെ പ്രതിരോധിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് അത് എടുക്കണം എന്നിട്ട് എത്രയും വേഗം നമ്മൾ അവരെ എന്താ ചെയ്യുക നമ്മൾ ഒറ്റമൂലി കൊടുക്കാൻ നിൽക്കാതെ അവരെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ട അല്ലെങ്കിൽ പാമ്പിന്റെ വിഷത്തിന്റെ കാഠിന്യം പോലെയിരിക്കും ചിലപ്പോൾ ആ വ്യക്തി മരണപ്പെടാൻ വരെ സാദ്ധ്യതയുണ്ട്